ആ ആ ഡോക്ടർ എൻ്റെ പേര് അർജുൻ

അത് ബ്രീഡ് എതാണെന്ന് കറക്റ്റ് അറിയില്ല സാറേ ഇപ്പോൾ ആ ആ അപ്പോൾ അതിന് ആ അതെ അതെ അതെ ഓ രണ്ട് മാസം

അല്ല പ്രസവിച്ചിട്ട് രണ്ട് മാസം ആ ആ അതെ സാറേ

ആ മൂന്ന് മാസം കഴിഞ്ഞാൽ അല്ലേ

ആ അപ്പോൾ അതിന് ആ ഡോക്ടർ ഇതിൻ്റെ ഭക്ഷണ രീതികളൊക്കെ അപ്പോൾ എങ്ങനെ ആട് തന്നെ കിട്ടുമല്ലേ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ

ആ അതൊന്നും ഇല്ലല്ലോ ആ ഓക്കെ ഓക്കെ പിന്നെ ഇതിന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആണല്ലേ കുത്തിവെപ്പ് വയ്ക്കേണ്ടത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആണല്ലേ കുത്തിവെപ്പ് പ്രതിരോധത്തിന്

ഓക്കെ ആ താങ്ക് യു സാർ അപ്പോൾ ഞാൻ ഇന്ന് വയ്ക്കുന്നേ ഓക്കെ താങ്ക് യു സർ